ഞാൻ കുഞ്ഞുന്നാൾ തൊട്ടേ റേഡിയോ കേട്ടു വളർന്നു വരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ വീട്ടിൽ പണ്ടു തൊട്ടേ രാവിലെ ഒരു അഞ്ച് അൻപത് ആകുമ്പോഴത്തേക്കും കൊണ്ട് ആകാശവാണി വെയ്ക്കും അപ്പോൾ അതിൽ രാവിലെ തൊട്ടുള്ള വന്ദേ മാതരം തൊട്ടു ഞങ്ങളുടെ വീട്ടിലെല്ലാവരും എപ്പോഴും കേൾക്കുന്നതാണ് ഇപ്പോഴും അതു തന്നെയാണ് വീട്ടിൽ ചെയ്തു പോകാറുള്ളത് അപ്പം എനിക്ക് അതിൽ അങ്ങനെ എടുത്തു പറയാനായിട്ട് പരിപാടികളൊന്നും ഇല്ല ഞാനങ്ങനേ അങ്ങനെ പേര് വെച്ചൊന്നും പരിപാടി അങ്ങനെ കേട്ടു നടക്കുന്നതൊന്നും അല്ല പക്ഷെ അതിൽ കേൾക്കുന്ന പാട്ടുകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാനീ റേഡിയോയെന്നു പറയുമ്പോൾ വേറെ റേഡിയോ ചാനൽസൊന്നും കേൾക്കാറില്ല കാരണം വീട്ടിലങ്ങനെ അങ്ങനെ ആരും കേൾക്കാറ് ഒന്നുമില്ല എല്ലാവരും ആകാശവാണി തന്നെയാണ് കേൾക്കാറ് അപ്പം ഞാനും അതും കേട്ടു തന്നെയാണ് വളർന്നതും ഇപ്പോഴും ഞങ്ങൾക്ക് അടുക്കളയിലങ്ങനൊരു റേഡിയോ വെച്ചിട്ടുണ്ട് അപ്പം റേഡിയോ വെച്ചു തന്നെയാണ് പാചകവും കാര്യങ്ങളൊക്കെ നടക്കാറ് ഇപ്പം പഴയ പാട്ടും ഇപ്പം ആകാശവാണിയിൽ പുതിയ പാട്ടും എല്ലാം ഇടാറുണ്ട് അങ്ങനെ പഴയ പാട്ടുകൾ മാത്രം കേട്ടു നടക്കുന്നതൊന്നും അല്ല അപ്പം അതിലിങ്ങനെ സമയം അനുസരിച്ച് ഓരോ കാലഘട്ടത്തിലെ പാട്ട് കേൾപ്പിക്കാറുണ്ട് പിന്നെ ഈ റേഡിയോ പരിപാടികളൊക്കെ വളരെ ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ നടന്മാരും നടികളും പേര് കേട്ട ആൾക്കാരൊക്കെ വന്ന് ചെയ്യുന്നപരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിലവരുടെ അവർ വന്ന് അവരുടെ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കാം അതുകൂടാതെ അവർ അവരുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും അതു വെച്ച് നമുക്ക് നമ്മളിഷ്ടപ്പെടുന്ന പാട്ടാണോ അവർക്കിഷ്ടപ്പെടുന്നതെന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ ആ പരിപാടി എനിക്കിഷ്ടമാണ് പിന്നെ അതല്ലാതെ റേഡിയോയിൽ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു പാട്ട് കേൾക്കുന്നൊരു പരിപാടിയുണ്ട് അതും എനിക്കിഷ്ടമാണ് അപ്പോൾ കഥകളും പാട്ടും എല്ലാം കൂടി കേട്ട് അല്ലാതെ പാട്ടു മാത്രം കേട്ടു പോകുന്നതല്ല അത് ഇത് എല്ലാം കൂടി കേട്ടൊരുമിച്ചു പോകുന്ന ഒരു ഒരു ടെക്നിക്കാണ് അത് അത് എനിക്കു വളരെ ഇഷ്ടമാണ് എനിക്ക് റേഡിയോ അങ്ങനെ പണ്ട് വലിയൊരു താത്പര്യം ഇല്ലായിരുന്നു കാരണം നമുക്കിഷ്ടമുള്ള പാട്ടു വെക്കാൻ പറ്റില്ലല്ലോയെന്നായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല അതു കേൾക്കുന്ന പാട്ടു കേട്ടുപോകാം ആ പാട്ടുകൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതാകാം ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തതാകാം പക്ഷെ അതെല്ലാം ലൈഫിൻ്റെ ഒരു പാർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കേട്ടു പോകും പിന്നെ ടി വി എനിക്കിഷ്ടമാണ് ഇപ്പം ഞാനങ്ങനെ ടി വി കാണാറില്ല പണ്ട് ഞാനൊരുപാട് കാണുമായിരുന്നു ടി വിയിലെ സിനിമയും അല്ലാത്ത പരിപാടികളും എല്ലാം ഞാൻ കാണുമായിരുന്നു പക്ഷേ റേഡിയോയോട് ഒരു പ്രത്യേകതരം ഇഷ്ടം എനിക്കിപ്പോഴും ഉണ്ട്